പോഷണപദ്ധതി എന്ന് പറയുന്നത് ആറുമാസം മുതൽ മ ചെറിയ മക്കൾക്ക് കൊടുക്കും പ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന പോഷണവസ്തു കൊടുക്കുന്നുണ്ട് ആറുമാസം മുതൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇല്ല ഒരു പതിനേഴ് വയസ്സ് വരെ കൊടുക്കുന്നത് പോഷണവസ്തുക്കളുണ്ട് അതിന് വേണ്ടി ഗോതമ്പ് നെല്ല് ബാർലി പിന്നെ നുറുക്ക് ഗോതമ്പ് പിന്നെ അങ്ങനത്തെ പോഷക ഭക്ഷണങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ചെറിയ മക്കൾക്കുള്ള കുറുക്ക് പൊടി അങ്ങനെ ഉള്ളതെല്ലാം

ഗവൺമെൻറ് പ്രധാനമന്ത്രി ഈ ഈ ഇതാക്കുന്നുണ്ട് അതിൽ ചെറിയ മക്കൾക്ക് ബ തൂക്കം കൂടാനും തൂക്കം ഇല്ലാത്ത മക്കൾക്ക് ഒക്കെ തൂക്കം കൂടാനും കുട്ടികൾക്ക് ഒക്കെ തൂക്കം കൂടാനും വേണ്ടിയാണ് ഈ പദ്ധതി ഇപ്പോൾ ഇതാക്കിയിട്ടുള്ളത്